എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സമാധാനമാണ് എൻ്റെ സന്തോഷം അത് ഞാൻ എപ്പോൾ ഹാപ്പിയായിരിക്കുന്നോ അപ്പോൾ ഞാൻ പിന്നെ സന്തോഷമായിരിക്കുന്നത് അത് എൻ്റെ മൈന്റ് ഫ്രീ ആയിരിക്കണം ടെൻഷൻ ഫ്രീ ആയിരിക്കണം അതിനിപ്പോൾ ഫാമിലിലെ പ്രശ്നങ്ങൾ നേരിട്ട് തന്നെ ഇപ്പോൾ കട പ്രശ്നങ്ങൾ അതുപോലെ ഫാമിലിലെ ഓരോ വിഷയങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തുള്ള പ്രശ്നങ്ങൾ അതക്കെയാണ് നമ്മളെ മെയ്നായിട്ട് ബാധിക്കുന്നത് പിന്നെ സന്തോഷമായിട്ട് പിന്നെ കൂടുതൽ നേരമൊക്കെ ഇങ്ങനെ ടെൻഷനൊന്നും ഇല്ലാതെ വീട്ടിലിങ്ങനെ ഫ്രണ്ട്ലി ആയിരിക്കും അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും പ്രോബ്ലെംസ് ഒന്നും ഇല്ലാതിരിക്കണമെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ വല്ല വീട്ടിൽ വല്ല ഫെസ്റ്റിവെൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ ആയിട്ട് കൂടുന്ന സമയത്ത് അപ്പോഴും നല്ല സന്തോഷമായിരിക്കും പിന്നെ നമ്മൾ ഗെറ്റ് ടുഗെദർ പോലുള്ള പരിപാടി പഴയ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്നത് അതും നല്ല സന്തോഷമാണ് അവരുമായിട്ടുള്ള ആ ഒരു വൈബ് ഫ്രണ്ട് വല്ല ഗേൾ ഫ്രണ്ട് ആയിട്ട് പുറത്ത് പോകുന്നത് അവളോട് സംസാരിച്ചിരിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് സന്തോഷമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ കൂടുതലും ഫാമിലിയിൽ വേറെ പ്രോബ്ലെംസ് ഒന്നുമില്ല നല്ല രീതിക്ക് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുമ്പോൾ ഒരു സന്തോഷമാണ് ഇപ്പം തത്കാലം പ്രോബ്ലെംസ് ഒന്നുമില്ല കടവും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല ജസ്റ്റങ്ങനെ പോയ്കൊണ്ടേ ഇരിക്കുക കുറച്ച് പൈസ സേവ് ചെയ്യുക പിന്നെ വല്ല ട്രിപ്പ് പോവുക ഫാമിലിയായിട്ട് പുറത്ത് പോവുക അതൊക്കെ ഭയങ്കര സന്തോഷമാണ്